ഞാൻ ശേഖരിച്ചിട്ടുള്ളത് സ്റ്റാമ്പുകൾ ഞാൻ അങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടില്ല എന്നാൽ നാണയങ്ങൾ ഞാൻ ഒത്തിരി ഒത്തിരി ശേഖ ശേഖരിച്ചു വച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് ശാസ്ത്രമേളയ്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്നും ഇവിടുന്നും ഒക്കെ കിട്ടുന്ന നാണയങ്ങള് എന്റെ എന്റെ പപ്പയുടെ അമ്മയൊക്കെ ഇങ്ങനെ ശേഖരിച്ചുവെച്ച് പണ്ടുകാലം മുതലേ ഇങ്ങനെ വെച്ച നാണയങ്ങളൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇപ്പോഴും ശേഖരിച്ചു വച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും ഞാന് ഒരു ബുക്കിനകത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് ശാസ്ത്രമേളയ്ക്ക് പോകുമ്പം അതിന് മത്സരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കല്ലുകളുടെ ശേഖരണം ഉണ്ട് പണ്ട് മുതലേ ഈ പുതിയ തോടുകളിൽ ഒക്കെ പോകുമ്പം ഒഴുകിവന്ന കല്ലുകൾക്ക് ഓരോരോ ഷേപ്പ് ആയിരിക്കും ഇപ്പൊൾ നമ്മൾ ഒരു ബീച്ചിൽ പോകുവാണെങ്കിൽ അവിടെ അവിടെ ഷെല്ല് കിടക്കും ഡിഫറെൻറ് കളേഴ്സിലുള്ള ഷെല്ല് കിടക്കുന്ന പോലെതന്നെ ഈ ഡിഫറെൻറ് കളേഴ്സിൽ ഉള്ളതും ഡിഫറെൻറ് ഷേയിപ്പിൽ ഉള്ളതും ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി കല്ലുകളൊക്കെ ഞാൻ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട് ആ കല്ലുകൾ ഒക്കെ ഞാനിപ്പം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് വച്ചാൽ അക്വേറിയത്തിൽ ഇട്ടിട്ട് അക്വേറിയത്തില് അത് ഇട്ട് അത് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് അത് സൂക്ഷിക്കുന്നത്